നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് കാത്തിരുന്നിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത് സത്യം പറഞ്ഞാൽ ഈ കൂട്ടി വച്ച പൈസ കൊണ്ടാണ് ഇത് വാങ്ങിയത് പക്ഷേ ഇപ്പം നിലവിൽ കയ്യിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നല്ലൊരു ഫോൺ വാങ്ങണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഫോൺ വാങ്ങി ഫോൺ വാങ്ങിയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സ്ക്രീനടക്കം നമുക്ക് അത് ടച്ച് ചെയ്യുമ്പോൾ പോലും അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല ക്യാമറയാണെങ്കിൽ ഒട്ടും ക്വാളിറ്റിയില്ല കാരണം നിങ്ങൾ ഓഫർ ചെയ്യുന്ന വലിയ ക്വാളിറ്റി കണ്ടിരുന്നു പരസ്യത്തിലൊക്കെ ഒരുപാട് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ക്യാമറയാണ് കാണിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയൊക്കെ നിങ്ങൾ പറയുന്ന ക്വാളിറ്റിയിലെടുക്കാൻ സാധിക്കുന്നില്ല ഈ പറഞ്ഞ വിലയേക്കാൾ താഴെയുള്ള വില കൊണ്ട് വാങ്ങിക്കുന്ന ഫോണുകളിലൊക്കെ എന്ത് ക്ലാരിറ്റിയാണ് ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും പക്ഷേ ഇവിടെ ആ രീതിലുള്ളൊരു നിങ്ങൾ പരസ്യത്തിൽ കാണിക്കുന്ന ഒരു ക്വാളിറ്റിയും ഈ ഒരു പ്രൊഡക്റ്റിൽ കാണാനായിട്ട് സാധിച്ചില്ല അതുപോല തന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റിയാണെങ്കിലും ബാറ്ററിയുടെ ആ ഒരു ബാക്ക് അപ്പ് വളരെ കുറവാണ് പെട്ടന്ന് തന്നെ ചാർജൊക്കെ ഇറങ്ങി പോയാണ് അപ്പം ദയവായിട്ട് എന്താണ് പറയുക ഇനിയുള്ള പ്രോഡക്റ്റുകളിലെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ പ്രൊഡക്റ്റ് എനിക്കിപ്പം ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അത് ഞാൻ തിരികെ നൽകിയതാണ് അപ്പം ഞാൻ എൻ്റെ ഒരു കൺസ്യൂമർ കെയറിലല്ലങ്കിൽ അതിലേക്കൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നൊണ്ട് കാരണം നമ്മളൊരുപാട് പ്രതീക്ഷയോടെടുത്തൊരു പ്രൊഡക്റ്റ് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈസയല്ലേ പോകുന്നത് നമ്മളാരും പൈസ വച്ചത് കൊണ്ട് ഇരിക്കുന്നവരല്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് കണ്ടെത്തി ഉപയോഗിക്കുന്നവരാണ് വാങ്ങുന്നവരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പൈസ കൊണ്ട് ഈ ഒരു എമൗണ്ടിന് ഈ ഒരു പ്രൈസിന് ഈ ഒരു പ്രൊഡക്റ്റ് ഒട്ടും യോജിച്ചതല്ല ഒട്ടും ക്വാളിറ്റിയില്ല ഒരു ബാക്കാപ്പ് ആണ് ബാറ്ററി ആണെങ്കിലും അതേപോലെ ആ നമ്മുടെ ഈ ക്യാമറയാണെങ്കിലും യാതൊരു വിധ തരത്തിലുള്ള നിങ്ങൾ പറയുന്ന പരസ്യത്തിൽ പറയുന്ന യാതൊരു വിധ ക്വാളിറ്റിയും കാണാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് ദയവായിട്ട് ഈ പ്രൊഡക്റ്റ് തിരികെ എടുക്കണം അല്ലങ്കിൽ ഞാൻ നഷ്ടപരിഹാരത്തിനായിട്ട് കേസ് കൊടുക്കും